ഇന്ത്യയിലെ ഭക്ഷണം ത്തിനെ കുറിച്ച് പറയാണെങ്കില് ഇന്ത്യയിലെ ഭക്ഷണം വളരെ സൂപ്പര് ഭക്ഷണമാണ് ഉത്തരേന്ത്യയിലാണെങ്കിലും മസാലപ്പൂരി ബേൽപൂരി അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് കൂടുതലും ഫേമസായിട്ടുള്ളത് കേരളത്തിലേക്ക് വരികയാണെങ്കില് സദ്യ ബിരിയാണി അവയൊക്കെയാണ് ഫേമസ് കുറച്ച് മസാല കൂട്ടിയുള്ള വിഭവങ്ങളാണ് കേരളത്തില് ഫേമസ് കേരളത്തില് തന്നെ കോഴിക്കോടാണ് വളരെയധികം ഭക്ഷണം കിട്ടുന്ന സ്ഥലം അവിടെ ബിരിയാണിയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് അവിടത്തെ ബിരിയാണി ഭയങ്കര സൂപ്പറാണ് ബിരിയാണി മാത്രല്ല കോഴിക്കോടന് ഹലുവ തലശ്ശേരി ബിരിയാണി ഒക്കെ ഭയങ്കര ഫേമസാണ് അതുപോലെതന്നെ ബീച്ചില് കിട്ടുന്ന മുട്ട മസാല അതുപോലെതന്നെ ഉപ്പിലിട്ടത് ഐസിറക്കി അങ്ങനതെയൊക്കെ സ്പെഷ്യല് ഐറ്റം ഫുഡുകള് കോഴിക്കോട് ലഭ്യമാണ് വയനാട്ടിലേക്ക് വരികയാണെങ്കില് വയനാട്ടില് ഫേമസായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് പോത്തും കാലും ബീഫും അതുപോലെതന്നെ പാല്കപ്പ തിരുവനന്തപുരത്താണ് സദ്യ കൂടുതലായിട്ടും അടിപൊളി സദ്യ കിട്ടുന്ന സ്ഥലം തിരുവനന്തപുരം തെക്ക് ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ മലപ്പുറത്ത് മന്തി അടിപൊളിയാണ് നെഹുദിയിലെ മന്തിയാണ് സൂപ്പര് നല്ല മയോനൈസും അല്ഫാമും കൂട്ടി മന്തി അടിപൊളിയാണ് അതുപോലെതന്നെ സര്ലാസ് എന്ന് പറയുന്നത് തൈരാണ് തൈരിനെയാണ് സര്ലാസ് എന്ന് പറയുന്ന വയനാട്ടിലാണ് സര്ലാസ് എന്ന് പറയുന്നത് മലപ്പുറത്ത് അതിന് തൈര് എന്നു പറയും കോഴിക്കോടും തൈര് എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ബീച്ച് സൈഡില് മുട്ട മസാല ഉപ്പിലിട്ടത് ഐസിറക്കി ഇങ്ങനെ പ്രത്യേക തരം ഫുഡ് ഐറ്റംസ് കോഴിക്കോട് ലഭ്യമാണ്